ഞാൻ കൈരളി ടി വിയിലെ കുക്കറീ ഷോ ആ മാഡം ചെയ്യുന്നതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുതിയ പുതിയ പാചകത്തിനെപ്പറ്റി അറിയാനും പുതിയ പുതിയ ടേസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെയ അറിയാൻ പറ്റും പിന്നെ ഇന്നത്തെ കാലത്ത് യുറ്റൂബ്സ് ഉള്ളതുകൊണ്ട് യുറ്റൂബ് ചാനലിൽ കുറേ അധികം സ്ത്രീകൾ ഇന്ന് തുടങ്ങിയിരിക്കുന്നത് ഫുഡ് ഐറ്റംസ് ആയിട്ടാണ് അപ്പോൾ കുറേ ഫുഡ് ഐറ്റംസ് അതിൽ നിന്നും നമുക്ക് കിട്ടും എല്ലാ എല്ലാവരുടെയും ഒരുവിധം ഓഹ് കുറേ ആൾക്കാരുടെ കുക്കറീ ഷോ ഞാൻ കാണാറുണ്ട് ഭയങ്കര ഇതാണ് ഭയങ്കര മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് അതിൽനിന്ന് ഇത് പുതിയ പുതിയ ഓരോരോ ടേസ്റ്റ്കളും രീതികളിലും ആണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്